ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ മാം ഇത് ആരാണ് എവിടെനിന്നാണ് വിളിക്കുന്നത് മാഡം ആ ഓക്കെ ഓക്കെ താമരശ്ശേരി ആണല്ലേ ആ എന്തായിരുന്നു മാഡം ഓക്കെ ആ ഫോട്ടോ ഷൂട്ടിന് ഒക്കെ ആണ് അല്ലേ അടുത്ത മാസം ഏതാണ് ഡേറ്റ് ഒന്ന് പറയാമോ ഇരുപതിന് ആണ് അല്ലേ ആ ആ ഇരുപത് ഇരുപതാം തീയതി ആണ് കല്ല്യാണം അപ്പോൾ സേവ് ദി ഡേറ്റ് ഒക്കെ എടുക്കണ്ടേ മാഡം

അപ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് വന്നിട്ട് ആണോ മാഡത്തിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണോ നമ്മൾ വെഡ്ഡിംഗിൻ്റെ ഫോട്ടോസ് എടുക്കുന്നത് അതോ പുറത്തേക്ക് എവിടെ എങ്കിലും ഒക്കെ പോയിട്ട് വേണോ എടുക്കാൻ വയനാട്ടിൽ വെച്ചിട്ടാണ് അല്ലേ ഓക്കെ ആ ഹാ ആ ഇത് ഇപ്പോൾ ആ ഓക്കെ അപ്പോൾ നിങ്ങൾ സ്ഥലം നിങ്ങൾ കൺഫേം ആക്കിയിട്ട് പറഞ്ഞാൽ മതി അതിന് അനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒര് അൻപത് അറുപത് എന്തായാലും വരും കല്ല്യാണത്തിൻ്റെ പരിപാടി അടക്കം തന്നെ അതിൻ്റെ തലേന്ന് ഇപ്പോൾ മെഹന്തി ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ആ അപ്പോൾ എല്ലാം കൂടെ കഴിച്ചിട്ട് ഒക്കെ ആണെങ്കിൽ ഒര് അൻപതിനായിരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആ അപ്പോൾ

വീഡിയോ ആയിട്ട് വരുകയാണെങ്കിൽ അപ്പോൾ ഈ സേവ് ദി ഡേറ്റിന് ഒക്കെ വീഡിയോ അങ്ങനെ ഒന്നും വേണ്ടേ ഫോട്ടോ മതി അല്ലേ അപ്പോൾ മെയിൻ ഫോട്ടോ ഷൂട്ട് ആണ് വേണ്ടത് അപ്പോൾ സ്ഥലങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് ആണെങ്കിൽ ഏതാണ് സ്ഥലമെന്ന് പറഞ്ഞാൽ മതി അതിന് അനുസരിച്ച് ചെയ്യാം ആ പിന്നെ എത്ര ദിവസത്തെ പരിപാടി ഉണ്ട്

ആ അങ്ങനെ ഒക്കെ പരിപാടി ഉണ്ട് അല്ലേ മാഡം ഒരു മൂന്ന് നാല് ദിവസത്തെ പരിപാടി ഉണ്ട് എന്തായാലും

ആ ഓക്കെ അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഒന്ന് പറഞ്ഞാൽ മതി അത് അനുസരിച്ച് നമുക്ക് അത് ചെയ്യാം റേറ്റും കാര്യങ്ങൾ ഒക്കെ അത് അനുസരിച്ച് ചെയ്യാം കേട്ടോ ആ ഓക്കെ മാഡം ഞങ്ങൾ ഇവിടെ രാമനാട്ടുകരയാന്ന് കോഴിക്കോട് തന്നെയാന്ന് ആ ആ മാഡത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ